തീർച്ചയായും ചിത്രരചന ഒരു തൊഴിലായി ഞാൻ ഏറ്റെടുക്കില്ല കാരണം ചിത്രരചന ഒരു തൊഴിലിനുപരിയായൊരു കലയായി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു ടൈം പാസ്സ് അല്ലെങ്കിലൊരു ഹോബി എന്ന നിലയിൽ അത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു തൊഴിലായി കാണുന്നതില് വെല്ലുവിളികളെന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിപ്പോള് ഒരു തൊഴിലായിട്ടാണ് നമ്മള് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ എല്ലാ ദിവസവും നമ്മൾക്ക് വരക്കാനായിട്ട് കിട്ടിയെന്ന് വരില്ല അത് തൊഴിലായി എടുക്കുകയാണെങ്കിൽ എല്ലാം ദിവസവും ചിത്രം വരയ്ക്കാൻ നമുക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി വേതനം കിട്ടിയെന്ന് വരില്ല അതുമാത്രമല്ല സമയം ഒരുപാട് ഉപയോഗപ്പെടുത്തണ്ട ഒരു തൊഴിലായി മാറും അത് അപ്പോള് നമ്മൾ ചിലവഴിക്കുന്ന സമയത്തിനത്ര സമയത്തിനൊത്ത പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്നില്ല അങ്ങിനെ ഒരു പ്രശ്നം ഉള്ളിടത്തോളം കാലം ചിത്ര രചന ഒരു തൊഴിലായി കാണുന്നത് നമുക്ക് ചിന്തിക്കാം പക്ഷേ അത് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പിന്നെ ഈ ചിലവ് കൂടുതലായിരിക്കും സമയം നമുക്ക് ഒരുപാട് നഷ്ടമാകും അതിനൊത്ത് പ്രതിഫലം നമുക്ക് ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ചിത്ര രചന ഒരു തൊഴിലായിട്ട് കാണാതെ നമ്മുടെ ഒഴിവു വേളകളിലെ ഒരു വിനോദമായി മാത്രം കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയില് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ കലയെ വളർത്താൻ കഴിയും ഒരു പക്ഷേ ആ ആൾക്ക് അതായത് നമ്മുടെ കൂടെ ഉള്ളവർ പ്രതീക്ഷിക്കാത്ത രീതിയില് നമ്മള് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചിത്രം വരച്ച് നൽകുകയാണെങ്കില് അത് നമുക്കുണ്ടാക്കുന്ന സന്തോഷം വേറെ തന്നെയാണ് ആ തരത്തില് നമ്മള് ഇതൊരു തൊഴിലായി കാണാതെ ചിത്ര രചന ഒരു കലയായിട്ട് തന്നെ ഒരു കൈ വന്ന ഭാഗ്യമായിട്ട് തന്നെ നമ്മള് കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കില് നമ്മുടെ കലയില് നമുക്ക് മെച്ചപ്പെട്ട ഒരു മേഖലയില് നമുക്കെത്തിപ്പെടാൻ കഴിയും അതുമാത്രമല്ല ഇത് ഒരു തൊഴിലവസരത്തിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ കഴിയും അതിന് അതൊരു തൊഴിലായിട്ട് ചിത്ര രചനയെ കാണുന്നതിന് പകരം അതിൽ നിന്നുള്ള സാധ്യതകള് മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും